ആ മലയാളത്തിൽ കുറേ പഴഞ്ചൊല്ലുകളൊക്കെ ഉണ്ട് പഴഞ്ചൊല്ലും പ്രയോഗങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ തന്നെയാണെങ്കിലും ആ കുറേ ഇങ്ങനെ കേട്ടിട്ടുണ്ട് ഓരോരുത്തർ പറയുന്നതാണേലും നമ്മളാണെങ്കിലും ഓരോ സാഹചര്യം വരുമ്പോൾ ഓരോ പഴഞ്ചൊല്ല് പ്രയോഗങ്ങളൊക്കെ നമ്മൾ പറയും അതിൽ ഇപ്പം ഓർമ്മ വരുന്ന ഐക്യമത്യം മഹാബലം ഒരുമയുണ്ടേൽ ഉലക്കമേലും കിടക്കാം ഇതൊക്കെ പറയുന്നത് നമ്മുടെ ഒത്തൊരുമയെക്കുറിച്ചാണ് അതായത് ഒരുമിച്ച് നിന്നാൽ നമുക്കെന്തും സാധിക്കും ആ ഒരു രീതിയിൽ നമ്മൾ പ്രയോഗിക്കുന്നതാണിതൊക്കെ പിന്നെ ഒന്നാണ് കാരസ്കാരത്തിൻ കുരു പാലിലിട്ടാൽ കാലാന്തരേ കൈപ്പ് ശമിപ്പതുണ്ട് ഇതൊരു പ്രയോഗ ഇത് ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ കേട്ടിട്ടുണ്ട് അതായത് നമ്മുടെ എന്തേലും സ്വഭാവം ശീലം ഇതൊക്കെ എത്ര ഇത് കണ്ടാലും ചിലപ്പോൾ മാറില്ല അതങ്ങനെ തന്നെ ആയിരിക്കും ഈ ഈ നമ്മൾ പറയില്ലേ ഈ പട്ടീടെ വാല് പന്തിരാണ്ട് കൊല്ലം കുഴലിലിട്ടാലും

നിവരില്ലായെന്ന് അതേപോലത്തെ പ്രയോഗങ്ങങ്ങളൊക്കെ നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ കേൾക്കുന്നതാണ് പിന്നൊരെണ്ണം പടപേടിച്ച് പന്തളത്തു ചെന്നപ്പം പന്തം കൊളുത്തിപ്പട ഇതേപോലെ നമ്മളെന്തേലും കാര്യങ്ങൾ ഇവിടുന്ന് അനുഭവിച്ചിട്ടായിരിക്കും എവിടേലും പോകുന്നത് അപ്പം ചെന്നപ്പോൾ അവിടെ അവിടെ ഇതേ സ്ഥിതി അപ്പം നമ്മൾ പറയാറുണ്ട് ഓഹ് പടപേടിച്ച് പന്തളത്ത് ചെന്നപ്പം പന്തം കൊളുത്തിപ്പട ഇത് ലൈഫിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് പിന്നൊരണ്ണം കേട്ടിട്ടുള്ളത് മോന്തായം വളഞ്ഞാൽ അറുപത്തിനാലും വളയും ഇതൊരു പ്രയോഗമാണ് പിന്നെ ചൊട്ടയിലെ ശീലം ചുടല വരെ അതായത് നമ്മൾ എന്ത് ശീലമാണോ നമ്മൾ കൊച്ചുനാളിലേതൊട്ട് ഒരു ശീലം പഠിച്ച് അത് നമ്മൾ മരണം വരേയും നമ്മൾ നമുക്കാ ശീലം കാണുമെന്നാണ് ഈ ഒരു പ്രയോഗത്തിൽ പറയുന്നത് അതായത് ചൊട്ടയിലെ ശീലം ചുടലവരേയെന്നുള്ള പ്രയോഗത്തിൽ ഇങ്ങനെയിങ്ങനെ കുറേ കാര്യങ്ങങ്ങൾ നമ്മൾ ഡെയിലി ലൈഫിൽ തന്നെ ഇതൊക്കെ നമ്മൾ പ്രയോഗിക്കാറുണ്ട് ഇതുകണക്ക് പലരും പറഞ്ഞ് കേട്ട് ഇതൊക്കെ പലരും പറഞ്ഞ് കേട്ട് ആയാലും അല്ലെ നമ്മളും ഇതൊക്കെ പ്രയോഗിക്കാറുണ്ട് ഇത്തരത്തിലുള്ള കുറേ വാക്ക് വാക്കുകൾ പ്രയോഗങ്ങളൊക്കെ